വിവാഹങ്ങളിൽ വധുക്കൾക്ക് പല പല സമ്മാനം സമ്മാനങ്ങൾ ആളുകൾ നൽകാറുണ്ട് അതിൽ പ്രധാനമായും ആഭരണങ്ങൾ മോതിരം ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ മോതിരം മാല നെക്ളെസ് അതുപോലെ തന്നെ പല പല ഗോൾഡ് ഐറ്റംസ് ഡയമഡ് ഐറ്റംസ് പ്ലാറ്റിനം മെയ്ഡ്ഡ് ഐറ്റംസ് അങ്ങനെ പല പല കാര്യങ്ങൾ വധുക്കകൾക്ക് ചടങ്ങുകളിൽ നൽകാറുണ്ട് പുരുഷരെ വെ പുരുഷന്മാരിൽ അതായത് വരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളും വലുതാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീധനവും ഇതിൽ ഒരു പ്രധാന ഘടകം വഹിക്കുന്നുണ്ട് സ്ത്രീധനം കൊടുക്കരുത് വാങ്ങരുത് എന്ന ആക്റ്റ് നിലവിൽ വന്നാൽപ്പോലും ഇന്നും പല പല ആളുകൾ സ്ത്രീധനം കൊടുക്കുന്നുണ്ട് ഇതിന് പ്രധാനമായും കാരണമാകുന്നത് ഈ സ്ത്രീകളുടെ പിതാക്കന്മാർ തന്നെയാണ് അവർ ഇതിനെ നിഷേധിച്ചാൽ വരന് അതിൽ യാതൊരു അവകാശവുമില്ല വരനും വരൻ്റെ വീട്ടുകാർക്കും സ്ത്രീധനം ആവശ്യപ്പെടാൻ ഒരു അധികാരവും ഇല്ല സ്ത്രീകൾ സ്ത്രീധനത്തിന് എതിരെ നോ എന്ന് തന്നെ പറയണം അതിൽ വേറെ ഒരു വാക്കും പാടില്ല നോ സമ്മാനങ്ങളായി ആടമ്പര സമ സാമഗ്രികൾ അല്ലാതെ അവർക്ക് പല പല അല്ലാതെയുള്ള സാധനങ്ങളും നൽകാൻ സാധിക്കുന്നതാണ് നന്ദി